വെള്ളം അരിക്കാനും അതേപോലെ ശുദ്ധീകരിക്കാനും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന

വെള്ളം കടത്തി വിട്ടുകോണ്ട് മറ്റൊരു പൈപ്പിലൂടെ അത് വീണ്ടും ശേഖരിച്ച് അത് ടാങ്കിയിൽ ആക്കുക എന്നുള്ള പ്രക്രിയായിരുന്നു ചെയ്തിരുന്നത് മണ്ണിലൂടെ ഈ വെള്ളത്തെ ഒഴുക്കി ഒഴുക്കി അങ്ങനെ ടാങ്കിൽ അങ്ങനെ കലക്കി കലക്കി അതിൽ നിന്നും

ആരോടും നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ഇപ്പം പങ്ക് വയ്ക്കരുത് ഇനി പങ്ക് വെച്ചാൽ തന്നെ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയും ഇത്തരത്തിൽ

ഈ ഒരു അവസാന കൂടിക്കാഴ്ച എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നും നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ നിന്ന് നമ്മൾ ഉരിത്തിരിഞ്ഞു ഉണ്ടായ നമ്മുടെ അത് എന്ത് ആവശ്യമെന്ന് പറയുന്നത്

നമുക്ക് ഉപകാരപ്രദമായ ഒരു ഉണ്ടായിക്കൊണ്ട് അതായത് ഭാഷയ്ക്ക് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പുതിയൊരു ഉണ്ടായിക്കൊണ്ട് ഓരോ ദിവസവും ഉസ്താദിന് ഉസ്താദിന് ദിവസവും വന്ന് ഇടങ്ങേറാകണം എന്നില്ല

ശുദ്ധീകരിക്കാനും നമുക്ക് നമ്മുടെ സയൻസ് അതുപോലെ മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം പഠിച്ചെടുത്തതായ രീതികൾ പ്രയോഗിക്കേണ്ടതുണ്ട്